ആരായിരുന്നു വിളിക്കുന്നത് ആഹാ എന്തായിരുന്നു വിളിക്കുന്നത് ആ അതെ അതെ മരിയ ഡ്രൈവിംഗ് സ്കൂളായിരുന്നു എങ്ങനെ ഡ്രൈവിങ് പഠിക്കാനാണോ ആണോ ആദ്യം ആദ്യമായിട്ടാണോ അതോ ഏതൊ ആ എവിടെ എങ്കിലും പോയിട്ടുണ്ടോ ആണോ ഓക്കെ ഓക്കെ ആ റ്റു എല്ലാം ഉണ്ട് നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട് റ്റൂ വീലറുണ്ട് ഫോർ വീലറുണ്ട് ഉണ്ട് അത് ഓരോരുത്തരും വരുന്നവരുടെ നിങ്ങളുടെ സൗകര്യം പോലെയാണ് ഓരോരുത്തര് വർക്ക് ചെയ്യുന്നവരുണ്ടാകും അല്ലാത്തവരുണ്ടാകും അങ്ങനെ ഓരോരുത്തരുടെ സമയം ഡിഫറന്റ് ആണല്ലൊ അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ സാഹചര്യം പോലെയാണ് വൈകുന്നേരം മാത്രം മതിയെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലേയും വൈന്നേരവും ഓരോ മണിക്കൂർ വീതം വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ ആണേലും കുഴപ്പമില്ല നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണോ ആ അപ്പം എങ്ങനെയാണ് സൗകര്യം വൈകുന്നേരങ്ങളിൽ അല്ലേ അപ്പം നിങ്ങൾ ഓക്കെ വീട് എവിടെ ആയിട്ടാണ് പ്രകാശാന്നല്ലേ പറഞ്ഞത് നിങ്ങളുടെ സൗകര്യം പോലെ എന്താണ് വൈകുന്നേരം ഏത് റൂട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് ഏത് ഏത് ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റിസും ഉപയോഗിക്കാം ആദ്യത്തെ ഒരു ഇനിഷ്യലായിട്ട് കുറച്ച് തിയറി ഉണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് നേരെ തന്നെ പ്രാക്റ്റിസിലേക്ക് പോകാം വ്യാതി റിട്ടൺ ടെസ്റ്റ് ഒരു അത് നമുക്ക് അത്യാവശ്യം ബേസിക്കായിട്ടെല്ലാവർക്കും കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ എഴുതാവുന്നതേ ഉള്ളു അതാ ദിവസങ്ങളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങ് നടത്തിയേക്കാം പിന്നെ ആ ഫീമെയിൽ സ്റ്റാഫ് ഉണ്ട് കുഴപ്പമില്ല അങ്ങനെയാണോ കംഫോർട്ടബിൾ അങ്ങനെ കംഫോർട്ടബിൾ നമുക്ക് എന്താണ് ഷൈനി എന്ന് പറയുന്നൊരു ചേച്ചി ഉണ്ട് നന്നായിട്ട് ചേച്ചി പഠിപ്പിക്കും ഏത് റൂട്ടാണ് വേണ്ടതെന്ന് ഏതാ റ്റൂ വീലറാണോ ഫോർ വീലറാണോ ഏതാ എടുക്കുന്നത് അതോ രണ്ടും എടുക്കുന്നുണ്ടോ ഫോർ വീലറല്ലേ ആ ആ ഓക്കെ ഓക്കെ ഫോർ വീലർ ഓട്ടോമാറ്റിക്കുണ്ട് അല്ലാതെ എന്താ മാനുവലി ചെയ്യുന്നത് ഉണ്ട് ഏതാ വേണ്ടത് ആ ഓട്ടോമാറ്റിക്ക് നമ്മൾ പഠിക്കുമ്പം നമുക്ക് മാനുവലി ചെയ്ത് പഠിക്കുവാണെങ്കിൽ പിന്നെ ഏത് വണ്ടി കിട്ടിയാലും നമുക്ക് എടുക്കാമല്ലോ ഓട്ടോമാറ്റിക്ക് ആദ്യമേ പഠിച്ചാൽ പിന്നെ നമ്മൾ അത് അതുവായിട്ട് കംഫോർട്ടബിളായിരിക്കില്ല വേറൊരു വണ്ടിയാണ് കിട്ടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കല്ലാത്ത വണ്ടിയൊക്കെ എടുക്കേണ്ടി വന്നാൽ പിന്നെ പ്രാ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം പഠിക്കുമ്പം ചെയ്ത് പഠിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് അതുകഴിഞ്ഞ് പിന്നെ ഉപയോഗിക്കുമ്പം ഈസി ആയിക്കോളുമല്ലോ മാന്യുവൽ ഓട്ടോമാറ്റിക്കാണെങ്കിലുവേ ഏത് റൂട്ടിലാണ് നമുക്ക് വേണ്ടല്ലെ മാനുവലി തന്നെ എടുക്കാം കുഴപ്പമില്ല നമുക്കേത് റൂട്ടിലാണ് പോകാനാണ് താല്പര്യം അഹ് അഹ് അഹ് അത് കുഴപ്പമില്ല പൂർത്തി ആവണ്ടല്ലോ അവർ ഹെൽപ്പ് ചെയ്തോളുമല്ലോ പേടിക്കണ്ട അത് നിങ്ങൾ പറയുന്ന റൂട്ട് തന്നെ വരുമ്പോൾ പറയുന്ന ഏത് റൂട്ടാണേലും നമുക്ക് കുഴപ്പമില്ല പോയി തിരിച്ച് വരാം നമ്മുടെ റേ എഹ് അത്

ടോട്ടൽ അത് നിങ്ങളുടെ ചിലർക്ക് ഒത്തിരി ദിവസമെടുത്തിട്ടായിരിക്കും പഠിക്കുന്നത് ചിലർ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പഠിക്കും ഏതായാലും കുഴപ്പമില്ല നമുക്ക് ടോട്ടൽ വരുന്നത് പത്താണ് പത്തിൽ എന്താണ് നമ്മൾ സമയമെടുക്കുന്നത് പോലെ ഓരോ കിലോമീറ്റർ എടുക്കുന്നത് അനുസരിച്ചാണ് കിലോമീറ്ററിന് അഞ്ഞൂറ് രൂപ വെച്ചാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾ ഒരിത് വെച്ച് ഇപ്പം നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ എന്നാ രണ്ട് കിലോമീറ്ററൊന്നിച്ച് എടുക്കാം അങ്ങനെ സൗകര്യം പോലെ ചെയ്യാം ആ അത് ആ നമുക്ക് ലേണെഴ്സ് എടുക്കുന്നോടം വരെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രാക്റ്റിസ് വേണമെങ്കിൽ എക്സ്ട്രാ വരും ലേണെഴ്സ് കിട്ടുന്നിടം വരെ ടെസ്റ്റിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് ചെയ്യും കുഴപ്പമൊന്നും ഇല്ല ആ ഒരു മാസത്തിനുള്ളിലത്തെ ഒരു മാസത്തിനുള്ളിൽ നോർമലി അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ ചെയ്യും ഓരോരുത്തരുടെ ആവശ്യം പോലെ ഇമ്മീഡിയേറ്റ് ആയിട്ട് ചെയ്യുന്നവർ ഉണ്ട് അല്ലെങ്കിൽ ഇച്ചിരി സാവകാശം ചെയ്യുന്നവരുണ്ട് എനിവേ ഒരുമാസത്തിനുള്ളിൽ തന്നെ സാധാരണ തീരാറുണ്ട്

അപ്പം ഒന്നിവിടെ വന്നൊന്ന് നാളെ എപ്പഴെങ്കിലും ഒന്ന് സൗകര്യം കിട്ടുമ്പോൾ ഒന്ന് വന്നാൽ മതി ഇവിടം വരെ എന്നിട്ട് ആ സീനിയർ സ്റ്റാഫ് എല്ലാ ദിവസങ്ങളും ഉണ്ട് ഉണ്ട് ആ സൗകര്യം ഉണ്ട് നമുക്ക് മ് മ് എന്നാൽ ശരി കെട്ടോ ഓക്കെ താങ്ക്യൂ ആ